ആ എടീ കഴിഞ്ഞ പതിനഞ്ചാം തീയ്യതി ആയിരുന്നു കല്യാണം ഓഹ് എല്ലാം ഒന്ന് പെട്ടെന്നായിരുന്നു ആരേയും അറിയിക്കാനൊന്നും പറ്റിയില്ല ഒരു രജിസ്റ്റർ മാരേജായിരുന്നു വീട്ടുകാരറിഞ്ഞാൽ എന്തോ ഒരുപാട് ആഡംബരമൊന്നും വേണ്ട എന്ന് വച്ചിട്ടായിരുന്നു അത് ആരേയും അങ്ങനെ അധികം അറിയിക്കാഞ്ഞത് പിന്നെ എന്താണ് പുള്ളിക്കും അത് തന്നെയാ താൽപര്യമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ അടുത്ത കുറച്ച് ബന്ധക്കാർ മാത്രം കൂടീട്ട് ഒരു ചെറിയ പരുപാടി ആയിരുന്നു ആരെയും അങ്ങനെ വിളിച്ചൊന്നുമില്ല പിന്നെ ഒരു എല്ലാവർക്കും കൂടെയൊരു ഗെറ്റ് ടുഗെതറ് പോലെ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഗെറ്റുഗതറല്ല ഒരു ഒരു പാർട്ടി പോലെ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോഴേ എൻ്റെ പാസ്സ്പോർട്ടിനകത്ത് പുതിയ എൻ്റെ സർ നേം വെക്കണമായിരുന്നു പുള്ളീടെയും കൂടെ അത് വെച്ചിട്ട് അപ്പം പിന്നെ അതിനുവേണ്ടിയിട്ടിപ്പോൾ ഒരു എന്താണ് ആ പേര് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ നടക്കുന്നുണ്ട് അതിനൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് അത് അവിടെ ചെന്നിട്ട് മാറ്റാൻ വേണ്ടീട്ടേ അല്ലെങ്കിൽ പിന്നിപ്പം അത് ശരിയാവുകയില്ല പിന്നെ അത് പ്രശ്നമാകത്തില്ലേ എല്ലായിടത്തും കുറച്ചിടത്ത് പേര് അങ്ങനെ കിടുക്കുന്നു പിന്നെ വേറെ പേര് കിടക്കുന്നു അതുകൊണ്ട് മാറ്റി പിന്നെ ലൈഫൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു ഏയ് ഞാൻ വിചാരിച്ച പോലെ വല്യ കുഴപ്പമൊന്നുമില്ല